ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട് പള്ളിയിലെ കുറച്ച് പരിപാടിക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ട് അല്ലാതെ ഡാൻസ് പാ കളിപ്പിച്ചിട്ടുണ്ട് കണ്ടിട്ടും ഉണ്ട് ഡാൻസ് ക് പഠിപ്പിക്കുന്നത് പോലെയോ കാണുന്നത് പോലെയോ അല്ല കളിക്കുന്നത് വളരെ പ്രയാസമാണ് കയ്യെത്തുന്നിടത്ത് മെയ്യെത്തണം മെയ്യെത്തുന്നിടത്ത് കയ്യെത്തണം കണ്ണെത്തുന്നിടത്ത് കാലെത്തണം അങ്ങനെ കുറേ കുറേ ഏറെ കാര്യങ്ങൾ നമ്മൾ അതിന് ചെയ്യണം അപ്പോൾ വളരെ പാടുള്ളൊരു സംഭവമാണ് ഈ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മൊത്തത്തിൽ തെറ്റി പോവും അത് മാത്രം നമ്മുടെ കൂടെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മുടെ സ്റ്റെപ്പ് കാരണം അതും അവർക്ക് പ്രശ്നം ആവും തെറ്റി പോകുന്നതായിരിക്കും ഈ ഒരു ടീം വർക്ക് ആണ് അപ്പോൾ ടീമിൽ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീം മൊത്തം തെറ്റി പോവും അപ്പോൾ ഒരു കാരണവശാലും ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല പിന്നെ ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസമാണ് കാണുമ്പം നമുക്ക് എപ്പോഴും രസമാണ് പക്ഷേ കാണുന്നത് പോലെ അല്ലല്ലോ റിയാലിറ്റി നമുക്ക് എല്ലാം കാണാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ ഏറെ പ്രയത്നം കുറേ നാളത്തെ സാ പ പ്രയത്നവും സമയവും എല്ലാം എഫേർട്ടും എല്ലാം ഉണ്ട് അതിൽ ഇപ്പം ഒരു കാരണവശാലും ഇതൊരു ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഡാൻസ് കളിച്ചിട്ടുള്ള ആളെന്ന രീതിയിലും അത് വളരെ പാടാണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടും മെൻറലി നമ്മൾ കുറേ ബ് പ്രിപ്പേർ ആവണം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധം നമുക്ക് വേണം ഒരിക്കലും നമ്മൾ സ്റ്റെപ്പ് തെറ്റിക്കാനോ സിങ്ക് വിട്ട് കളിക്കാനോ ഒരിക്കലും പാടില്ല വളരെ പ്രയാസമുള്ളൊരു രീതി ഒരു ഒരു കർത്തവ്യമാണ് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുക അല്ലെങ്കിൽ എ എന്നുള്ളത് പക്ഷേ ഡാൻസ് കാണുക എന്നത് നമ്മുടെ കണ്ണ് കൊണ്ട് നമുക്ക് വെറുതെ നിൽക്കുമ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു പ്രയാസമോ പാടോ ഒന്നുമില്ല ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നേ ഉള്ളൂ